മറ്റ് ഗ്രഹങ്ങളിൽ ബാഹ്യജീവൻ ഉണ്ടെന്നാണ് പലരും നിനച്ചുവച്ചിരിക്കുന്നത് അത് സത്യമാണോ ഇല്ലയോയെന്ന് ഇതുവരെയും നമുക്കും ശാസ്ത്രലോകത്തിനും കണ്ടുവെയ്ക്കാനായിട്ടില്ല അതിലാകർഷമായ സിദ്ധാന്ധങ്ങൾ എന്നുപറയുന്നത് പല ശാസ്ത്രഞ്ജന്മാരും പറയുന്നത് അവർക്കുള്ള അവർ കൊടുത്തുകഴിഞ്ഞ റേഡിയേഷൻ എനർജി അത് തിരിച്ചുവന്നു എന്ന് പറഞ്ഞാണ് ആ ഗ്രഹങ്ങളിൽ ഇപ്പോൾ ഒരു ചന്ദ്രനിൽ പോലും ജീവനുണ്ട് എന്നാണ് പലരും വിശ്വസിക്കുന്നത് പല ഭൗമ ശാസ്ത്രകാരും അവരുടേതായിട്ടുള്ള റേഡിയേഷൻ കൊടുത്തുകഴിഞ്ഞപ്പോൾ അതെ എനർജി തിരിച്ചു അവർക്ക് കിട്ടി എന്നാണ് പറയുന്നത് അതിനകത്തു അവര് പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം ഇത്തരത്തിലൊരു ജീവനുകൾ അവിടെ ഉണ്ട് എന്നാണ് ഇതിനെക്കുറിച്ചു കൃത്യമായ ധാരണയോ വിശദീകരണമോ ശാസ്ത്രലോകത്തിൻ്റെ ഭാഗത്തു കിട്ടീട്ടില്ല ഇതിനുമാത്രമല്ല ഇതിനെക്കുറിച്ചു നമുക്കിപ്പോൾ പറയാനും ആവില്ല ചില സിദ്ധാന്തങ്ങൾ എന്നുപറയുന്നത് പലരും പല ശാസ്ത്രജ്ഞന്മാരുടേയാണ്